കേരളത്തിലെ യുവതലമുറ കൃഷിയിൽ നിന്ന് വരാൻ കാരണമെന്ന് പറഞ്ഞാല് കേരളത്തിൻ്റെ മുഖഛായ തന്നെ മാറി ഓരോ മാറ്റങ്ങളും ഓരോ കണ്ടുപിടുത്തങ്ങളും ഓരോ ഇതായി പഴയ കേരളമല്ല ഇപ്പഴത്തെ കേരളം കാരണം ഇപ്പഴത്തെ ഒരു കുട്ടിക്ക് പോലും കൃഷി ചെയ്യാൻ താല്പര്യമില്ല അതുപോലെ തന്നെ ഇപ്പഴത്തെ ആളുകൾക്ക് കൃഷി കൊണ്ട് മുന്നോട്ട് പോവാൻ പറ്റാത്തൊരു സാഹചര്യമായി അത് അതുപോലെ ധാരാളം അതായത് നമ്മുടെ കേരളമൊക്കെ ധാരാളം മാറ്റങ്ങൾ കണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അത് ആ ഇപ്പം ആരും തന്നെ കൃഷിയിലങ്ങനെ പങ്കാളി അല്ലെങ്കിൽ കൃഷിയിൽ നോക്കി ജീവിക്കുന്നില്ല അവർക്ക് കൃഷി ചെയ്യാൻ വയ്യ കാരണം അവർക്ക് മുടക്കിയ മുതൽ തിരിച്ച് കിട്ടുന്നില്ല അതുപോലെ തന്നെ പഴയ കാല അതൊന്നും കാലഘട്ടമല്ല അതായത് എല്ലാം ഇപ്പോൾ മാർക്കറ്റിലും എല്ലാം കറ് കൃഷി ചെയ്ത് ആർക്കും ഇപ്പം കഴിക്കണ്ട കാരണം എല്ലായിതും ഓരോ കടകളും സൂപ്പർ മാർക്കറ്റ് മാളുകള് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറി അതുപോലെ ഒഴിഞ്ഞ് കിടക്കുന്ന എല്ലാ സ്ഥലത്തും ഇപ്പം ബിൽഡിങ്ങുകളും ഫ്ലാറ്റ്കളും പണിയുകയാണ് ഇപ്പം മനുഷ്യർക്ക് കൃഷി ചെയ്യാൻ പോലും സ്ഥലമില്ല എല്ലാ എല്ലായിടത്തും ഇപ്പോൾ നിറച്ചും വൺ വാഹനങ്ങളും അതുപോലെ തന്നെ ധാരാളം നമ്മുടെ കൃഷി ചെയ്യാനിപ്പോൾ ആർക്കും ഒരു ഇതില്ല ആർക്കും ആ ഒരു പഴയ ഇൻട്രസ്റ്റില്ല അവർക്കിപ്പം വേറെ എന്ത് ജോലി ചെയ്യാനായാലും അവർക്ക് പണത്തിനോട് മാത്രമെ ഉള്ളു അവർക്ക് നല്ല ആഹാരം കൃഷി ചെയ്ത് ഉണ്ടാക്കണമെന്ന് ചിന്തയില്ല